എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്നു പറയുമ്പോൾ അത് ഓരോ ഡയലോഗഗ് അല്ലെങ്കിൽ ഓരോ പ്രയോഗങ്ങൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പ അതിന് നമുക്ക് ആദ്യം ഒരു രീതിയിൽ എഴുതും പിന്നീട് കുറേ ചിന്തിക്കുമ്പോൾ അതിനും ബെറ്റ്ര് മറ്റൊന്നാണെന്ന് തോന്നും അങ്ങനെ കുറേ ആലോചിക്കുമ്പോൾ എല്ലാം മാറി മാറി വരും അപ്പം നമ്മൾ അതിൽ ഏത് യോജിക്കുന്നു ഉള്ളത് നമുക്കൊരു സംശമായി വരും ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നമ്മൾ ഒരു ആശയ കുഴപ്പത്തിലാവും ഇതിനെ എങ്ങനെ മറികടക്കുമെന്നുുള്ളത് ഇനി ഏറ്റവും നല്ല ഒരു എൻ്റെ ഒരു അഭിപ്രായം കൂടുതൽ വായിക്കുക വായിച്ചറിയുക മറ്റു കഥകളും നോവലുകളും വായിച്ചു അതിൽ കൂടുതൽ പരിചയപ്പെടുക അപ്പം അത് നമുക്ക് നമ്മുടേതായ തനതായ ഒരു ശൈലി ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് മറികടക്കാനാവുകയും ചെയ്യും പിന്നെ സർഗാത്മകമായ വിഷയങ്ങൾ കണ്ടെത്താൻ പലർക്കും പല കഴിയാതെ വരും കാരണം അവരുടെ വായനയുടെ കുറവ് മൂലമാണ് അത് ഒരു വായന ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ ക്രിയേറ്റീവായി സർഗാത്മകമായി എഴുതുക എന്നുള്ളതിൽ വളരെ ലിമിറ്റ് ഉണ്ടാവും അതിനൊരു അവർക്ക് കൂടുതലായി ചിന്തിക്കാനുള്ള ഒരു ഏരിയ കിട്ടില്ല അവർക്കൊരു സ്ഥലം കിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു പ്രശ്നം എന്താണ് വച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും സാമൂഹികമായ കുറെ പ്രശ്നങ്ങൾ നേരിടും ചിലർ അവരുടെ സർഗാത്മകമായ രീതിയിൽ രാഷ്ട്രീയത്തിന് എതിരെ എഴുതും പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാകും തിരിച്ചു അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കൗണ്ടർ അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല അവർ അതിനെ പേടിച്ചു പല രാഷ്ട്രീയ കൊലപാതങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് പത്രക്കാർ കുറേ ജേർണലിസ്റ്റുകളെല്ലാം അവർ പത്രം വരുമ്പോൾ രാഷ്ട്രീയത്തിനെതിരായുള്ള ഒരു സത്യം പുറത്ത് വരുമ്പോൾ കൊല്ലപ്പെടും അതൊരു പേടിയാണ് എഴുത്തക്കാരൻ്റെ പേടി നേരിടുന്നത് ഒരു വൻ പ്രശ്നമാണ് പിന്നേ പിന്നെ അത് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് മറ്റ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ക്രിയേറ്റീവ് ബ്ലോക്കിങ്ങിനും മറ്റും എഴുത്തുകാർ എഴുത്തുകാരെന്ന നിലയ്ക്ക് നേരിട്ടേണ്ടി വരുന്ന മറ്റു ചാലഞ്ചുകൾ അല്ലെങ്കിൽ കടമ്പകൾ എന്നുള്ളത് അപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സമയത്തും പല രാഷീയ പ്രശ്നങ്ങൾ എൻ്റെ കവിതകിലും കഥകളലും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും എന്നെ വാർത്തകളാണ് പുതിയ വാർത്തകളെ എഴുത്തുകാരായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അത് പുറമേ കൊണ്ടുവരാൻ എനിക്കൊരു മടി ഉണ്ടാക്കിയതില്ലെങ്കിൽ എന്നെ ഒരു ഭീരുവാക്കി മാറ്റുന്നത് നമ്മുടെ രാഷ്ട്രീയ ചിട്ടകളാണ് പിന്നെ അതിനൊരു അലകറിയായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹിത്യപരമായി മറച്ചു വച്ചു എഴുതുകയാണെങ്കിൽ പോലും അവർക്കും മനസ്സിലാകില്ല അങ്ങനെ മനസ്സിലാവാതെ എഴുതുക എന്നുള്ളത് പിന്നെ എഴുത്തിൻ്റെ ആ വേല്യു ഇല്ലാതാക്കും എഴുത്ത് മനസ്സിലാവാത്തെ എഴുത്ത് വെറുമൊരു ഭാഷ മാത്രമാണ് അല്ലെങ്കിൽ വാക്കുകൾ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം